ഹലോ ചമ്പക്കുളം ഗ്യാസേജൻസിയല്ലെ ഞാനെ അടുത്ത ആഴ്ച്യിലിവിടുന്ന് സ്ഥലം മാറുവാണെ അപ്പം ഞാൻ എന്റെ അവിടുത്തെ നമ്പരും അഡ്രസ്സും തരാമേ ഈ സ്ഥലത്തു നിന്ന് ചെങ്ങമ്പുറത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം മാറുകയാണ് അപ്പോൾ എന്റെ നമ്പർ ഐ ഡി നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഈ നമ്പരാണെ പിന്നെ ഞാൻ എന്റെ പേര് ഓമന ഞാനിവിടുന്ന് സ്ഥലം മാറുന്നതു കൊണ്ട് എനിക്ക് ഈ ഇവിടെയൊക്കെയുള്ള ഗ്യാസ് റദ്ദാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എനിക്ക് അടുത്ത തിങ്കളാഴ്ച്ച ഞാനിവിടെ നിന്ന് സ്ഥലം മാറുന്നത് മാറിപ്പോവാണെ അതുകൊണ്ട് നിങ്ങളിവിടേക്ക് ഇനി ഗ്യാസ് സിലിണ്ടർ കൊണ്ടു തരേണ്ട എന്ന ആർ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്